ഇപ്പോൾ നാടകങ്ങളും നൃത്തപരിപാടികളും നടക്കുന്ന ഒരുപാട് സ്ഥലങ്ങള് കേരളത്തിലുണ്ട് കേരളം അതിന് പറ്റിയ ഒരു സ്ഥലം തന്നെയാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്

നമ്മക്കിപ്പം ശ്രദ്ധേയമായുള്ള കളികള് കഥകളി കുച്ചിപ്പുടി മോഹിനിയാട്ടം ചാക്യാർ കൂത്ത് അങ്ങനെ പലതരം കളികള് നമുക്ക് കലാരൂപങ്ങളായിട്ടും നമ്മളെ കാണിച്ച് തരാൻ വേണ്ടിയിട്ട് പല രീതീലുള്ള വ്യക്തികള് വേഷം കെട്ടി നിൽക്കുന്ന ഒന്നാണ് ഇങ്ങനെ ഉള്ള കളികള് അത് നമ്മുടെ കേരളത്തില് ഏകദേശം എല്ലാ നാട്യ കലാരംഗത്തും നാട്യ കാലാക്ഷേത്രങ്ങളിലും ഇതൊക്കെ നടക്കുന്നുണ്ട് നമ്മുടെ ശ്രീപദ്മനാഭസ്വാമി ക്ഷേത്രത്തില് അവിടെ അരങ്ങേറ്റം കുറിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട് അവരുടെയൊക്കെ മോഹിനിയാട്ടവും കുച്ചിപ്പുടിയും ഇതൊക്കെ അവിടെയാണ് അവര് അരങ്ങേറ്റം കുറിക്കുക അവിടെ അതിന് വേണ്ടി അവര് വേദി ഒരുക്കി കൊടുക്കുന്നുണ്ട് അങ്ങനെ പല രീതില് പല അമ്പലങ്ങളിലും ഇങ്ങനെ വേദി ഒരുക്കി കൊടുക്കാൻ വേണ്ടീട്ട് അവര് ശ്രമിക്കുന്നുണ്ട് ഇപ്പോൾ ഒരു സാംസ്കാരിക പരിപാടിയിൽ തന്നെ അവര് ഇങ്ങനെയുള്ള കുട്ടികളെ അവരുടെ കഴിവിനെ പരമാവധി അവര് പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് ഇവിടെക്കെയാണ് മെയ്നായിട്ട് പരിപാടികൾ അവര് നടത്തുന്നത്